വിനോദസഞ്ചാരികൾക്ക് പ്രതീക്ഷയെന്ന് ഏറ്റവും നല്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഫുഡ് ആണ് മുട്ടയപ്പം മുട്ടയപ്പം പ്രത്യേക എന്ന് പറയുമ്പോൾ സ്റ്റാളുകളുണ്ട് വീട്ടിലും തയ്യാറാക്കും മുട്ടയപ്പം കിട്ടാത്ത കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഫുഡ് ആണ് പിന്നെ അത് നല്ല ബീഫ് കറിയും ആട് കറിയിന്റെ അതിന്റെ ഒക്കെ കൂട്ടി കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡ് ആണ് പിന്നെ ആളുകൾക്ക് എല്ലാവർക്കും കഴിച്ചാൽ നല്ല ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കൂടിയാണ്

അത് സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെ വേറെ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്ത മുട്ടയപ്പം കിട്ടില്ല തിന്നാനും ടേസ്റ്റ് ഉള്ളതാണ് കഴിച്ചകഴിഞ്ഞാൽ ആളുകൾ പിന്നെയും പിന്നെയും വേണമെന്ന് പറയും ആർക്കും ഇഷ്ടപെടാണ്ട് നിക്കൂല അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് പ്രത്യേകിച്ച് ബീഫ് കറിയിന്റെ കൂടെയല്ലാം കഴിച്ചകഴിഞ്ഞാൽ ആളുകൾ വിടൂല അത്രക്കും നല്ല രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം കൂടിയാണ്